ഓ പറയൂ ബ്രെക്ക്ഫാസ്റ്റ് ഇഡലി ദോശ പഴംപൊരി ഉണ്ട നെയ്യ് റോസ്റ്റ് പിന്നെ എല്ലാത്തരം കടി കടികളും ഉണ്ട് ഓ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് വെജ്ജും നോണും ഓ ഓ റൂമും ഉണ്ട് സാറിന് ഏത് റൂമാണ് വേണ്ടത് ഏ സി റൂമ് നാലായിരം രൂപ ആറ് റൂമാണ് ഓക്കെ ഓക്കെ ആ ആയിക്കോട്ടെ കറി ചട്നി സാമ്പാറ് ഉവ്വ് വട ഉഴുന്ന് വട ഓ ഗ്രീൻ പീസും ഉണ്ട് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ കറിയായിട്ട് വെക്കുന്നത് ഉണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് ഇത്രയും ഉണ്ട് ബീഫ് ബീഫ് ഫ്രൈ ഉണ്ട് മട്ടനുണ്ട് സാറിന് എന്താണ് വേണ്ടതെന്ന് ചെയ്താൽ മതി എത്ര ബിരിയാണി സാറേ ആ ഓ ഓ ആയിക്കോട്ടെ ഓ ആയിക്കോട്ടെ ബർത്ത്ഡേ ഓക്കെ ഓ ഉണ്ടാകും ഉണ്ടാകും ഓ ചെയ്തു അ ചെയ്തു ചെയ്തു